ഇന്ത്യൻ എയ്ഡൽ പോലുള്ള സംഗീത റിയാലിറ്റി ഷോകളൊന്നും ഞാൻ കാണാറില്ല അപ്പോൾ എനിക്ക് സംഗീതമെന്ന് പറഞ്ഞ എനിക്ക് ഇങ്ങനെ പാടാനൊന്നും വലിയ കഴിവുള്ള ആളൊന്നും അല്ല ഞാൻ അപ്പോൾ ഞാനിങ്ങനെ പാടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ടീവിയിലൊക്കെ കണ്ട് ഷോകളീന്നൊക്കെ കണ്ടുപഠിക്കുകയെന്നല്ലാണ്ട് എന്താ പറയുക ഞാൻ കാണുന്ന ഷോയീന്നെന്ന് പറഞ്ഞാൽ ഈ സിനിമകളീന്നൊക്കെ കണ്ട് ഞാൻ കണ്ട് പഠിക്കുന്ന കേട്ടിട്ട് അങ്ങിനെ പഠിക്കുന്ന ഗാനങ്ങളാണ് ഞാൻ കൂടുതലും എന്താ പറയുക പാടാറ് അല്ലാണ്ട് സംഗീതപരമായിട്ട് എനിക്കങ്ങനെ ഞാൻ സംഗീതം പഠിക്കാനോ അങ്ങനെയൊന്നും പോയിട്ടില്ലാത്തതിനെക്കൊണ്ട് എനിക്കിതിനെപ്പറ്റി വലിയ കാര്യമായിട്ടുള്ള അറിവൊന്നുവില്ല അപ്പോൾ ഇതിപ്പോൾ എന്താ പറയുക ഇതുപോലത്തെ പ്രോഗ്രാമിലൊക്കെ നല്ല നല്ല ആൾക്കാർ നല്ല നല്ല ഗാനങ്ങളൊക്കെ പാടുന്നുണ്ടെങ്കിലും അവർക്കതിൻ്റേതായ കഴിവുകളുള്ളതുകൊണ്ടാണ് അവര് പറയുന്നത് അപ്പം നമ്മക്കെന്താ പറയുക നമുക്കതുപോലെ പാടാനുള്ള കഴിവുകളോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളിതു പോലത്തെ പ്രോഗ്രാമ് എന്താ പറയുക കാണാറില്ലെന്നല്ല ക കണ്ടിട്ടില്ല അപ്പോൾ ഇതിനെപ്പറ്റി നമുക്കിങ്ങിനെ വലിയ പിടിയില്ല അപ്പം നമ്മളീ പാടുന്നതൊക്കെ കൂടുതലും ഈ ടിവികളിൽ കണ്ടുവരുന്ന സിനിമകളിലൊക്കെ കാണുന്ന പാട്ടുകളൊക്കെയാണ് നമ്മൾ പാടുന്നത് അതിന് അപ്പോൾ നമ്മൾ നമ്മുടേതായ രീതിയിലാണ് പാടുന്നത് അപ്പോൾ വലിയ കാര്യമായിട്ടൊന്നും നമുക്കതിനെപ്പറ്റി വലിയ അറിവുകളൊന്നും ഇല്ല